ആ ചേച്ചി ഞാൻ ഒരു മെമ്പർഷിപ്പിൻ്റെ എടുക്കേണ്ട കാര്യത്തിനുവേണ്ടി വന്നതാണ്

സ്ഥലം തേനൂർ ഇല്ല ഇല്ല ഇല്ലാ

ആ അത് സ്റ്റോറിയാണ് നോവൽ പോലെത്തെയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ എത്ര ദിവസം ബുക്ക് കയ്യിൽ വെക്കാൻ പറ്റും ആ ആ ആ ആ ഓക്കെ ഇപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ബുക്കൊക്കെ ഉണ്ടാകുമോ ആ ഈ ഗെയിഡൊക്കെ ഉണ്ടാകുമോ പ്ലസ് ടുവിൻ്റെയൊക്കെ ആ ആ നമുക്ക് ഇപ്പോൾ ഒരേ സമയം എത്ര ബുക്ക് എടുക്കാൻ പറ്റും

മൂന്ന് ബുക്ക് അല്ലേ അത് മൂന്നും ഇരുപതു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ പോരേ ആ ഓക്കെ ഓക്കെ ഇപ്പോൾ ആ ബുക്ക് അതു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് അത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുമോ അത് അപ്പോൾ തന്നെ ആ ആ ആ ആ ആ ഒക്കെ അപ്പോൾ നമുക്ക് വേറെ ഇതിനിപ്പോൾ നമുക്ക് ഇനിഷ്യൽ ആയിട്ടിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മെമ്പർഷിപ്പിന് എത്ര പൈസ അടക്കണം മുന്നൂറാണോ പിന്നെ ഓരോ ബുക്ക് എടുക്കുമ്പോൾ പൈസ ഉണ്ടോ ആ ഈ പൈസ തിരിച്ചു തരുമോ ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം ആ ഓക്കെ ഫോം വലതുമുണ്ടോ അതോ ഇവിടെ പറഞ്ഞു തന്നാൽ മതിയോ ആ ആ ആ ഓക്കെ ആ ആ ഒക്കെ ഓക്കെ ഓക്കെ മാഡം ഓക്കെ താങ്ക് യു